എനിക്കു ഞാൻ ചെയ്ത പ്രൊജക്റ്റില് എനിക്കു പിഴവു വന്നിട്ടുണ്ട് അതു ഞാന് തരണം ചെയ്തിട്ടുണ്ട് എനിക്കു വന്ന പിഴവ് ഞാന് എൻ്റെ കസ്റ്റമറെ വിളിച്ചറിയിക്കുകയും അതിലിനി ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല അവര് തന്ന പ്രോഡക്റ്റില് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോള് ഞാന് വേറൊരു പ്രോഡക്റ്റ് പുതിയതു വാങ്ങി അവർ വിചാരിച്ചതിനേക്കാൾ ഭംഗിയുള്ള രീതിയിൽ അതിൽ ഡിസൈൻ ചെയ്ത് അവർക്കു സമർപ്പിച്ചിട്ടുണ്ട് അവരെ മനസ്സിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടു ഞാനവർക്കു സമർപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഈ ഒരു റിസ്ക്കിൽനിന്നും ഈ ഒരു ബുദ്ധിമുട്ടിൽനിന്നും ഈ പ്രൊജെക്റ്റിൽ വന്ന പിഴവിൽനിന്ന് അതു തരണം ചെയ്തതിൽനിന്നു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു ജീവിതമാകുമ്പോൾ അതിലൊരു അബദ്ധം പറ്റും ഒരു തെറ്റു പറ്റും പക്ഷെ ആ തെറ്റു തിരുത്തുക അതു നമുക്കു മുന്നിൽ നിൽക്കുന്ന വ്യക്തി നമ്മളൊരു തെറ്റു സംഭവിക്കുന്നതു നമുക്കു മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു രണ്ടാമതൊരാളുണ്ടാകുമ്പോഴാണല്ലോ തെറ്റുണ്ടാകുന്നത് നമ്മള് സ്വയം ഒരു തെറ്റു നമുക്കു സംഭവിക്കില്ലല്ലോ അപ്പോള് നമുക്കു മുന്നിൽ നില്ക്കുന്ന വ്യക്തിയുടെയടുത്ത് അത് ആ തെറ്റിനു ക്ഷമ ചോദിക്കുവാനും ആ തെറ്റിനെ തരണം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ അദ്ദേഹത്തിനും മനസ്സിനു സന്തോഷകരമായ രീതിയിൽ അത് അവർക്കു പറഞ്ഞു മനസ്സിലാക്കി ആ തെറ്റു തിരുത്തി അതു ഭംഗിയാക്കാനും നമ്മൾക്കു കഴിഞ്ഞാൽ ഈ ലോകത്തു നമ്മൾക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്നു ഞാൻ വിശ്വസിക്കുന്നു